ഹലോ ആ ഓക്കെ ഓക്കെ ഓക്കെ അതെ അതെ അതെ

ഓക്കെ ഓക്കെ ഓക്കെ മ്മ് മ്മ് ആ ഉവ്വ് ഉവ്വ് ഉവ്വ് അതിപ്പം അതിപ്പം പുതിയ പോർഷൻ ആണോ വീടിൻ്റെ പുതിയ പോർഷൻ ആണോ അതോ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അ അ ഹ

ഓക്കേ

ആ ആ ഉവ്വ് ഉവ്വ് ഉവ്വ് അ ആ ഉവ്വ് ഉവ്വ് ഓ ഓക്കേ ഓക്കെ ഓക്കേ അപ്പോൾ സാറേ അതിൻ്റെ ബാലുസാറേ അതിൻ്റെ അകത്ത് എസ്റ്റിമേറ്റൊക്കെ ആക്കിയതാണോ അതോ ഞാൻ തന്നെ എസ്റ്റിമേറ്റൊക്കെ എടുക്കണോ ഓ ആ ഉവ്വ് ഉവ്വ് ഉവ്വ് ഉവ്വ് ആ ഉവ്വ് ഉവ്വ് ഉവ്വ് ആ അ ഉവ്വ് ഉവ്വ്

ആ ഉവ്വ് ഉവ്വ് ആ ആ ഉവ്വ് ഉവ്വ് ഉവ്വ് വയറിങ് വയറിങ് കൺസീലിങ് കൺസീലിങ് ആണോ വേണ്ടത് ആ ഓക്കെ ആ മ്മ് ഓക്കെ ഓക്കെ അപ്പം അവർ ആദ്യമായിട്ട് നമുക്കൊന്ന് എസ്റ്റിമേറ്റെടുത്താലെ സാറേ എറ്റേല് നമുക്ക് ഫസ്റ്റ് ലിസ്റ്റാക്കാൻ പറ്റുകയുള്ളു അതെ അതെ അതെ ഫസ്റ്റ് അത് എസ്റ്റിമേറ്റാക്കിയതിന് ശേഷം വന്നു നോക്കിയിട്ട് നമുക്ക് വന്ന് ഒന്ന് നോക്കിയതിനു ശേഷം അതിൻ്റെ എസ്റ്റിമേറ്റാക്കി തരാം ആ ഉവ്വ് ഉവ്വ് നമുക്ക് അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള കണക്ഷൻ തന്നെ അങ്ങു കൊടുത്താൽ മതി എക്സ്റ്റൻഡ് ചെയ്ത് പോയാൽ പോരെ ആ നിലവിലുള്ള കണക്ഷൻ എക്സ്റ്റൻഡ് ചെയ്യുകയാണേൽ അതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം പുതിയ കണക്ഷൻ എടുക്കണ്ടല്ലോ പക്ഷേ പിന്നെ ലോഡ് ആ ആ ലോഡ് ഉവ്വ ലോഡ് ലോഡ് കൂടുതൽ ആകുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ലോഡ് കൂടുതൽ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാര്യങ്ങൾ നമുക്ക് മീറ്ററിൻ്റെ ത്രൂ നമുക്ക് വയറിങ്ങെടുത്തിട്ട് കണക്ട് ചെയ്യാം അപ്പം അത് ബോർഡുകാർ അറിയരുതെന്നേ ഉള്ളു ബോർഡുകാർ അറിയരുത് ബോർഡുകാർ വന്ന് കഴിയുമ്പോൾ നമ്മൾ മീറ്ററിൽ നിന്ന് ത്രൂ കൊടുത്തേക്കുകയാണെന്ന് അവർക്കു മനസിലാകരുത് അത്രയും ഉള്ളു ആ അങ്ങനൊന്നും വന്ന് പിടിക്കത്തില്ല കാരണം നമുക്ക് മീറ്ററിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങു ഉള്ളിൽ നിന്നല്ലേ എടുത്തേക്കുന്നത് ഉള്ളിൽ നിന്ന് എടുത്ത് കിച്ചണിൻ്റെ ബാക്കിൽ കൂടെ പോവുകയല്ലേ കൺസീലിങ്ങല്ലെ അപ്പം അവർക്കത് മനസിലാവത്തില്ല നമ്മുടെ സേ നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ നോക്കേണ്ടത് മ്മ് മ്മ് നമുക്ക് അത് സോളാറായിരിക്കും നമുക്ക് ലാഭം കാരണം കറൻറ്റ് ചാർജ് ഒത്തിരി കുറയുമല്ലൊ അത് നമുക്ക് ചെയ്യാം ചെയ്യാം ചെയ്യാം അത് ചെയ്യാം ഏത് കമ്പനിയുടെ വേണമെങ്കിലും സോളാറ് വെച്ച് തരാം അതെ അതെ ഏത് കമ്പനിയുടെ വേണമെങ്കിലും സോളാറ് നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഏത് കമ്പനിയാണ് വേണ്ടത് എന്നുള്ളത് കമ്പനി ഏതാണ് വേണ്ടത് എന്നുള്ളത് സാർ തീരുമാനിച്ചാൽ മതി ഇല്ല അന്നേരം നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മൾ സാധാരണ പി വി സി പൈപ്പിൽ കൂടെ ചൂടുവെള്ളം വിടുമ്പോൾ പലപ്പോഴും ഡാമേജ് വരാറുണ്ട് അപ്പം അതിന് ചൂടുവെള്ളം പോകുന്ന പി വി സി പൈപ്പുണ്ടല്ലോ അത് തന്നെ കൊടുക്കേണ്ടി വരും അതെ അതെ അപ്പം രണ്ടോ മൂന്നോ ബാത്രൂം ഉള്ളത് എങ്കിൽ പാ സൈഡിൽ കൂടെ കൊടുക്കാമല്ലോ ആ പ മൊത്തം വേണ്ട ബാത്റൂമിലേക്ക് മാത്രം മതിയല്ലോ പിന്നെ കിച്ചണിലേക്കും മതിയല്ലോ ചൂടുവെള്ളം അപ്പം അത് മാത്രം ഔട്ടറ് കൊടുക്കാം ഔട്ടർ സൈഡ് കൊടുക്കാം ഔട്ടർ സൈഡ് അങ്ങു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് സെപ്പറേറ്റ് അങ്ങ് കൊടുത്താൽ മതി ഇതു കൂടത്തിൽ ജോയിൻറ്റ് കൊടുക്കരുത് പി വി സി യുടെ വെള്ളം സാധാരണ പി വി സി പൈപ്പിൽ കൂടെ പോകേണ്ട വെള്ളം പച്ച വെള്ളം പൊക്കോട്ടെ ചൂട് വെള്ളം പോകേണ്ടത് നമുക്ക് ഈ രീതിയിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി ആ അതു കുഴപ്പമില്ല മ്മ് സാറേ അടുത്ത അടുത്തയാഴ്ച്ച ഇച്ചിരി തിരക്കാണ് അടുത്തയാഴ്ച്ച ഇത്തിരി തിരക്കുണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയണം സാറേ മ്മ് വർ മ്മ് ഒരു പതിനഞ്ചു ദിവസം കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർത്ത് തരാം ഒരു പതിനഞ്ച് ഒരൂ അഞ്ച് ദിവസം മതിയാവും ഇത്രയല്ലേ വർക്കുള്ളു ഒരു അഞ്ച് ദിവസം പിടിക്കും ആ ആ ഉവ്വ് ഉവ്വ് ഉവ്വ് ആ ആ ആ ആ അപ്പം അത് സാർ അന്നേരം അപ്പം വരുന്നതിന് മുൻപ് പണി തുടങ്ങുന്നത് മുൻപ് സാർ സോളാറ് വെക്കാനുള്ള പൈപ്പൊക്കെ അടിച്ചിരുന്നോ എങ്ങനെ ആണ് സോളാറ് വെക്കാനുള്ള പൈപ്പൊക്കെ വെൽഡ് ചെയ്ത് എവിടെ ഏത് പൊസിഷനാണ് വെക്കേണ്ടതെന്ന് നോക്കിയിട്ട് സൂര്യപ്രകാശം കൂടുതലടിക്കുന്ന സ്ഥലം നോക്കിയിട്ട് നമുക്ക് അത് ഞാൻ അങ്ങോട്ട് വരാം സമയം കിട്ടുമ്പോ ഞാൻ അങ്ങോട്ട് കയറി വരാം അത് ആളെ വിളിച്ച് ചെയ്യിക്കണം കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ സാറ് പറഞ്ഞാൽ മതി എത് എന്നത്തേക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി മ്മ് മ്മ് മ്മ് അതനുസരിച്ച് നമുക്കത് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ